ഈ ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വീടുകളിലും മുതിർന്ന ആൾക്കാരും അതുപോലെ വയസ്സായ ആൾക്കാരും എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ മിക്ക വീടുകളിലും ഈ സർവീസിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലർ സൈഡ് ആയിട്ട് എന്തെങ്കിലും വേറെ ചെയ്യും അല്ലെങ്കിൽ ചിലർ മിക്കവരും വെറുതെ ഇരിക്കുന്ന റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ ആയിരിക്കും അപ്പം അവർക്ക് എന്ന് പറയാനായിട്ടാണെങ്കിൽ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും ആ ഒരു സമയത്ത് അവരുടെ ടൈം അവരുടെ ആ ഒരു ടൈം കടന്ന് പോകാനായിട്ട് കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ അവർക്ക് വേണം അതിന് വേണ്ടി ടി വി ടെലിവിഷൻ അതുപോലെ ഇന്റർനെറ്റ് ഇതൊക്കെ അവർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് വെറുതെ ഇരിക്കുന്ന സമയത്തിപ്പോൾ സീരിയലോ അല്ലെങ്കിൽ ഇങ്ങനെ കോമഡി ഷോസ് സിനിമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ ടി വി ടെലിവിഷൻ്റെ ആവശ്യം വരും അപ്പോൾ മൊബൈൽ ഒക്കെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അതുപോലെ തന്നെ പ്രായമായവർക്കാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും മൊബൈൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ഇത് കാണണമെങ്കിൽ പോലും ടി വി വേണം പിന്നെ ഈ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എന്താണോ കാണേണ്ടത് ആ ഓൺ ദ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് ഇപ്പോൾ പാട്ട് കേൾക്കണമെങ്കിൽ പാട്ട് കേൾക്കാം സിനിമ കാണണമെങ്കിൽ കാണാം അതുപോലെ തന്നെ കാണേണ്ടതെല്ലാം സെർച്ച് ചെയ്തുകഴിഞ്ഞാൽ ആ ഓൺ ദി സ്പോട്ടിൽ നമുക്കെല്ലാം കാണാം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ടി വി അതുപോലെ ഇന്റർനെറ്റ് ഉപകാരം എന്ന് പറയുന്നത് എല്ലാം വളരെയധികം ഉപകാരപ്രദം ആകുന്നൊരു കാര്യം തന്നെയാണ്